ആ രമേ എന്നാ ഉണ്ട് വിശേഷം ആണോ കട ഒക്കെ നല്ല രീതിയിൽ പോവുന്നോ കച്ചവടമൊക്കെ ആ എനിക്ക് ഇപ്പം വൈകീട്ട് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ടെ ഞാൻ അപ്പോൾ എനിക്ക് ഒരു ബിരിയാണി വെക്കാനായിട്ട് ആയിരുന്നു അന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സവോളയിലൊക്കേയ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇച്ചിരി മോശമായിരുന്നു മഴ കൊണ്ടൊക്കെ ആയിരിക്കും ആ ആ ആ ആ അതായിരിക്കും ആ ആ എനിക്ക് മനസ്സിലായി ആ ആ ഓക്കെ പിന്നെ ബിരിയാണിക്കുള്ള കുറച്ച് സാധനം ആ അരി ഏത് നല്ല നല്ല അരി ഏതുണ്ട് അതെടുക്ക് ആ ആ ഇന്ത്യ ഗേറ്റ് ഏതെങ്കിലും എടുത്തോ ഒരു രണ്ട് കിലോ എടുത്തോ ആ ആ പിന്നെ ഏതെല്ലാം ഉള്ള വെജിറ്റബിളും പിന്നെ തക്കാളി പിന്നെ മല്ലിയില ബീൻസ് ക്യാരറ്റ് ആ ആ പുതിനയില കാഷ്യൂ നട്ട് ആ കാഷ്യൂ നട്ടിനൊക്കെ വിലയായിരിക്കുമല്ലോ ആ അത് സാരമില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ആ ഹാ ആ ആ അതെ ആ ആ നെയ്യ് ആ പിന്നെ സവോളയും ഏതാ എടുക്കണം സവോള ആ എസ്സെൻസും കൂടെ എടുത്തേര് ആണോ പപ്പടം എടുത്തേര് പിന്നെ എന്തുവാ വേറെ ആ തൈര് സിമ്പിള് വേറെ വാങ്ങിച്ചോളാം നമ്മുടെ അടുത്തുണ്ടല്ലോ അത് വാങ്ങിച്ചോളാം ആ പച്ചമുളകും ഇഞ്ചിയും വച്ചേരേ കുറച്ചേ

പിന്നെ പിന്നെ എങ്ങനെയാ വെജ് ആ എന്നാൽ വെളുത്തുള്ളിയും കൂടെ എടുത്തോ ആ കാക്കിലോ വെളുത്തുള്ളിയും കറിവേപ്പില വേണ്ട ഹമ്മ് വേണ്ട പിന്നെ പല പച്ചക്കറി വേറെ പല ഐറ്റം ഉണ്ടെങ്കിൽ അങ്ങനെത്ത ഒക്കെ കുറച്ച് ഇട്ടേര് ആ അരക്കിലോ വീതം ആ

ആ ആ ഓക്കെ ആ എന്നാൽ ഓക്കെ രമേ ആ ശരി ആ ഓക്കെ